ഹലോ ഹലോ അതെ പറഞ്ഞോളൂ നമുക്ക് ഇപ്പോൾ ബീഫ് വരുന്നുണ്ട് ചിക്കൻ വരുന്നുണ്ട് മട്ടൻ വരുന്നുണ്ട് പിന്നെ പോർക്കും ഉണ്ട് മാഡം എല്ലാ ടൈപ്പ് മീറ്റ്സും നമുക്ക് അവൈലബിൾ ആണ് ആ ഓക്കേ ആ ഓക്കേ മാഡം ഇരുന്നൂറോ ആ ഓക്കേ ഓക്കേ ആ ആ ഓക്കേ ചിക്കൻ നമ്മൾ കോഴിക്കാണെങ്കിൽ ഒരു നൂറ്റിനാല്പത് ചാർജ് ചെയ്യും ഇറച്ചിക്കാണെങ്കിൽ അഡിഷണൽ വേണം ബൾക്ക് ആയിട്ടെടുക്കുമ്പോൾ നമുക്കെന്തെങ്കിലും അറേഞ്ച് ചെയ്തുതരാം മാഡം അതെന്തെലും അഡ്ജസ്റ്റ് നമ്മൾ ചെയ്തുതരാം

മട്ടൻ ഒക്കെ ആണെങ്കിൽ ഏകദേശം ഒരു നാനൂറ്റി ചില്ലറ രൂപ ഒക്കെ വെച്ചിട്ടാണ് പെർ കിലോയ്ക്ക് വരുക ഓക്കേ പോർക്ക് വേണ്ടി വരുമോ ഓക്കേ ചിക്കൻ എത്രയായിരുന്നു ആ ഓക്കേ ചി പിന്നെ ബീഫ് പറഞ്ഞത് എത്രയായിരുന്നു ടു ഹണ്ട്രഡ് ഓക്കേ ഓക്കേ മാഡം ഇതിന്റെ എല്ലാം കൂടെ ബഡ്ജറ്റ് ഏകദേശം ഞാൻ ഡിസ്കൗണ്ട് അടക്കം നോക്കിയിട്ട് മാഡത്തിന് വാട്സപ്പ് ചെയ്തുതരാം എന്നിട്ട് മാഡം ഹാ ഞാൻ നോക്കട്ടെ മാഡം മേഡത്തിന് എങ്ങനെയാണ് പരമാവധി നമുക്ക് എത്ര ഡിസ്കൗണ്ട് വരെ ചെയ്യാൻ പറ്റും എന്നൊക്കെ നോക്കിയിട്ട് ഞാൻ ഏകദേശം ഒരു ഓക്കേ ഓക്കേ കറിക്ക് വേറെ ബിരിയാണിക്ക് വേറെ അങ്ങനെയല്ലേ ആ ഓക്കേ ആ ഹാ ഹാ അതൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തിട്ട് എന്നിട്ട് ഏകദേശം ഒരു ബഡ്ജറ്റ് ഞാൻ മേഡത്തിന് വാട്സ്ആപ്പ് ചെയ്തേക്കാം ഓക്കേ മേഡം